എനിക്ക് വളർത്തുമൃഗങ്ങളെ ഇഷ്ടമാണ് കാരണം എന്താ വച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരു നായ് കുട്ടി ഉണ്ട് പിന്നെ ഒരു പശു കിടാവുണ്ട് പിന്നെ പൂച്ച ഉണ്ടായിരുന്നു പൂച്ച ഇപ്പോഴില്ല അത് മരിച്ചുപോയി അപ്പം എനിക്ക് വളർത്തുമൃഗങ്ങളെ വല്ലാണ്ട് ഇഷ്ടമാണ് അതിനെ നോക്കാനും നല്ല രസമാണ് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സങ്കടമോ വിഷമമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമങ്ങളൊക്കെ മാറുകയും ചെയ്യും നമുക്ക് പിന്നെ എന്നു സമയം പോകുന്നത് അറിയില്ല അപ്പോൾ അതിനെ കളിപ്പിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതറിയില്ല പിന്നെ ഇഷ്ടം എന്താ പറയുക നല്ല എന്താ പറയുക കെയറിങ്ങാണ് നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മുടെ പുറകെ വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പട്ടി ചെയ്തോളും പിന്നെ നമ്മൾ എന്താ ചെയ്യുക അഴിച്ച് ഭക്ഷണം കൊടുക്കാനും ഒരു എന്താ പറയുക നമ്മൾക്കിപ്പോൾ അതിനെ നോക്കാനൊക്കെ നല്ല രസമാണ് കാരണം എന്താന്ന് വച്ചു കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് അതിന് ഭക്ഷണം കൊടുക്കുക പിന്നെ വൈകുന്നേരം കൊടുക്കുക പിന്നെ ഇടക്കൊന്ന് അഴിച്ചു വിടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിൽ ഒരു കുളിർമയാണ് ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണുള്ളത്